ആ മനസ്സിലായി മനസ്സിലായി ആ ഞാൻ അത് അല്ല ചോദിച്ചത് വീടിൻ്റെ മുകളിൽ ആണോ പണിയണ്ടത് അതോ ജസ്റ്റ് സാ പുറത്ത് ആണ് പുറത്ത് ആണ് ശരി ആ ആ അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടീട്ടാന്ന് ആ വാട്ടർ ടാങ്ക് അല്ലേ എത്ര വലിപ്പം വേണമെന്ന് നിങ്ങക്ക് വല്ല ഇത് ഉണ്ടോ പതിനായിരം ലിറ്ററ് ആ അപ്പോൾ ശരി അതിന്റെ ബ്രിക്സും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഏറ്റെടുക്കണോ അതോ നിങ്ങള് വാങ്ങിക്കുമോ ആ ആ അങ്ങനെ ആണെങ്കിൽ എത്ര ബഡ്ജറ്റിലാ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അയ്യോ ബ്രിക്കൊക്കെ കൂടി ആകുമ്പോൾ പത്ത് ഇരുപത് റുപ്യ ആവും ഏട്ടാ അത് മിക്ക നാപ്പത് കടക്കില്ലേ

ബ്രിക്ക് മണല് സിമൻറ്റ് അത് ഒക്കെ ആവില്ലേ ഓ ടോട്ടൽ ആയിട്ട് വാങ്ങണ്ടേ ആ ആ അപ്പം ഒരു നാപ്പതിൻ്റെ അടുത്ത് വരില്ലേ എങ്ങനെ പോയാലും ആ അതൊക്കെ ഒതുക്കാം അത് ഒതുക്കാ നമ്മക്ക് ആ പിന്നെ ഇത് എവിടെയാ പണി ഇത് പുറത്തുതന്നെ അല്ലേ ആ അത് എങ്ങനെ ഷീറ്റ് ഇടണോ അതോ കാര്യം ആയിട്ട് ആ ആ ആ മ് എത്ര ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത് തീർക്കും പക്ഷെ ആ ആ ഒരാഴ്ചയ്ക്ക് ഉള്ളില് രണ്ടാഴ്ചയ്ക്ക് ഉള്ളില് തീർക്കണമെങ്കിൽ നിങ്ങളെന്നെ നനയ്ക്കുക കാര്യങ്ങൾ ഒക്കെ ചെയ്ത് തുടങ്ങണം ആ അത് റെഡി ആക്കാം ആ സ്ട്രോംഗ് ആക്ക് പിന്നെ നമ്മക്ക് സിമൻറ്റ് ഇറക്കണം പിന്നെ മണൽ ഇറക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് നമ്മക്ക് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ചെയ്ത് തീർക്കാം ആ പിന്നെ ആ ഞാൻ പിള്ളേരെ അയക്കാം അങ്ങോട്ട് അവര് ചെയ്തോളും ഞാന് അപ്പം അതുപോല തന്നെ എനിക്ക് പരിചയം ഉള്ള ലോറിക്കാരെയും മണലുകാര് ഒക്കെ ഉണ്ട് അവരെ ഒക്കെ വിളിച്ചിട്ട് ഞാന് സെറ്റ് ആക്കിതരാം എത്ര മണൽ ആണ് എത്ര ഇതിൽ ആണ് പറയുക

ആ അപ്പം ഞാൻ പിള്ളേരെ അങ്ങോട്ട് വിടാം അവര് ആകുമ്പോൾ ലോറിയും സിമൻറ്റ് ഒക്കെ അതില് വരും ഒരു ഉദ്ദേശം ശരി ആണെങ്കിൽ പത്ത് ഇരുപത് സിമൻറ്റ് വേണ്ടി വരും വേണ്ടി വരും കാരണം ഉറപ്പിച്ച് നിർത്തണ്ടേ വെള്ളം വന്ന് കൊണ്ട് ഇരിക്കുക അല്ലേ എങ്ങാനും വീണ് കെട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ എടക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കുവല്ലോ ആ ഹാ ഓ ആയിക്കോട്ടെ ഞങ്ങള് എന്തായാലും സെറ്റ് ആക്കി ചെയ്ത് തരാം അടുത്താഴ്ചയോ അടുത്താഴ്ചയ്ക്ക് ഉള്ളിൽ ഞാൻ വരും ആ അടുത്താഴ്ചയ്ക്ക് ഉള്ളില് എത്തും കാരണം പിള്ളേര് അവിടെ വേറെ ഒര് പണിക്ക് ഇറങ്ങിയേക്കണം അവരിക്കും ഇതുപോലത്തെ ഒര് വാട്ടർ ടാങ്ക് അത് ഒര് മറ്റേ ഈ ഇരുപതിനായിരം ഒരു ഹോൾ ഓഡിറ്റോറിയത്തിന് ആണേൽ അപ്പം ഇരുപതിനായിരം അടിക്ക് ഇരുപതിനായിരം ലിറ്ററ് ഇത് ആക്കാൻ വേണ്ടീട്ട് ഒക്കെ ആണ് അവര് ആ പണി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങട് അടുത്തായ്ച്ച ഇങ്ങട് ചാടും

ആ അപ്പം ഞാന് എല്ലാം സെറ്റില് ചെയ്ത് ബില്ല് ഞാൻ അങ്ങോട്ട് അയക്കാം അത് അല്ലെങ്കിൽ എന്നാ എങ്ങനെ വേണ്ടേ എല്ലാം സെറ്റിൽഡ് ആയിട്ട് ബില്ല് അയക്കണോ അത് ഓരോന്ന് ഓരോന്ന് അതിന്റെ ബില്ല് അങ്ങനെ അയച്ച് പോകണോ ആ ആ എന്നാ അങ്ങനെ അങ്ങോട്ട് ചെയ്യാം